ഹലോ ചേട്ടാ നമസ്കാരം നമ്മള് ചെറുപ്പുളശ്ശേരിന്നാണ് വരുന്നത് ഞങ്ങളീ ഹോട്ടലിലേക്ക് എത്തിയത് നിങ്ങളുടെ ഭക്ഷണത്തിനെ കുറിച്ചിട്ട് നമ്മള് അറിഞ്ഞതുകൊണ്ടാണ് ഇവിടെത്തെ ഭക്ഷണത്തെ കുറിച്ച് ഒരുപാട് പേര് അഭിപ്രായം നല്ല അഭിപ്രായം പറയുന്നത് കേട്ടു അപ്പോൾ ഞങ്ങളൊന്നു പരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് ഇവിടെത്തെ ഭക്ഷണങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ എന്താ സർ ഇവിടെത്തെ മെയിനായിട്ടുള്ള മെനു എന്തൊക്കെയാന്നുള്ള അറിഞ്ഞാൽ കൊള്ളായിരുന്നു ഏതൊക്കെയാണ് ഏറ്റവും ഇവിടെത്തെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും എന്തൊക്കെയാണ് ഓഫർ കൊടുക്കുന്നത് വെജിറ്റേറിയൻ വെജിറ്റേറിയനിൽ ആണെങ്കിലും നോൺ വെജിൽ ആണെങ്കിലും എന്തൊക്കെ ഐറ്റംസ് ആണ് കൊടുക്കുന്നുള്ളത് എന്നറിയണം പിന്നെ അതുപോലെത്തന്നെ ഫുഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്ന സ്റ്റാർട്ടപ്പ് എങ്ങനെയാണു അതായത് ഐസ് ക്രീമസ് ഫ്രഷ് ഫ്രൂട്സ് അങ്ങനെ എന്തെങ്കിലും നിങ്ങള് അലോ ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം അപ്പോൾ ചിക്കൻ ബിരിയാണി ഇവിടെ ആണ് എന്നുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി എങ്ങനെയായിരിക്കും ക്വാണ്ടിറ്റി അതായത് അത്യാവശ്യം ഒരാൾക്ക് കഴിക്കേണ്ട ക്വാണ്ടിറ്റി എത്രയാണ് അതായത് നമ്മള് കൊടുക്കുന്ന വാല്യൂനു അനുസരിച്ചിട്ടുള്ള വർത്ത് ആ പ്രോഡക്ടന്നു കിട്ടുകാന്നുള്ളത് അറിയണം എന്താണ് ബിരിയാണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഓക്കേ അല്ലെ അപ്പംനല്ല ബിരിയാണി നല്ല ബിരിയാണിയാണെന്ന് കേട്ടിട്ടാണ് വരുന്നത് ഇവിടെ പൊറോട്ട അതുപോലെ ചപ്പാത്തി അതൊക്കെ നല്ല സാധനമാണെന്നു അറിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതിനു അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന കറികളും നമുക്ക് നല്ല രീതിലൊന്നു ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട് അപ്പം അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ട് വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്കത് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി അനുസരിച്ച് ഞങ്ങൾക്കാ പ്രോഡക്റ്റ് നിങ്ങൾ തരണം